ഇന്നു വിശ്വസിച്ചു കഴിക്കാവുന്ന കാർഷികോൽപ്പന്നങ്ങൾ വളരെയധികം കുറവാണ് കാരണം എന്നുള്ളത് ഇന്നത്തെ കാർഷിക അവസ്ഥ തന്നെയാണ് കാർഷികർ കർഷകർ ഇന്നു വളരെയധികം മാരകമായ പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ മറ്റു ജൈവവളങ്ങളും മറ്റു ജൈവ വളങ്ങളല്ലാത്ത ധാരാളം കീടനാശിനികളും അതുപോലെ തന്നെ വിഷങ്ങളും അടങ്ങിയ പച്ചക്കറികളുമാണു നമുക്കു നൽകുന്നത് കീടനാശിനികളും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുന്നതിലൂടെടെ തന്നെ അത് നമ്മുടെ കാർഷിക വിളകളെയും അതുപോലെ മറ്റു സസ്യങ്ങളെയും അതു നല്ല രീതിയിൽ ബാധിക്കുന്നു കാരണം അത് ഈ ഈ മറ്റു രാസ വളങ്ങളുമെല്ലാം അത് സസ്യങ്ങളില് വന്നിരിക്കുന്ന പ്രാണികളെയും ചിലന്തികളെയും മറ്റു മറ്റു ജന്തുജാലങ്ങളെയും എല്ലാം നശിപ്പിക്കുന്നു ഇതിലൂടെ തന്നെ എത്രയും പെട്ടെന്നു കാർഷിക വിളകൾ കൊയ്യാനും അതു നല്ല രീതിയില് കൊയ്തെടുക്കാനും കർഷകര്ക്കു സാധിക്കുന്നു ഇതിലൂടെ തന്നെ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ കർഷകര് ഇന്ന് പെസ്റ്റിസൈഡ്സ് പോലുള്ള മറ്റു മാരകമായ ഉൽപ്പന്നങ്ങൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടൊക്കെത്തന്നെ ഇന്നു വിശ്വസിച്ചുകഴിക്കാവുന്ന കാർഷികോൽപ്പന്നങ്ങൾ നമുക്കു കിട്ടുന്നുണ്ടോ എന്നുള്ളതു വളരെയധികം സംശയകരമാണ് കാരണം ഈ രാസവളങ്ങളൾ പെസ്റ്റിസൈഡ്സുമെല്ലാം ഇവർ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ അതു നമ്മുടെ ശരീരത്തിനും നമ്മുടെ ആരോഗ്യത്തിനും വളരെ മോശമായ രീതിയിൽ അതു ബാധിക്കുന്നു കാരണം ഈ വശങ്ങളെല്ലാം അത് അത് നേരെ നമ്മുടെ വയറ്റിലോട്ടാണ് അതു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് എന്തുകൊണ്ടാണു ലഭ്യമാകാത്തത് എന്നു ചോദിച്ചാൽ അതിനുള്ള വളരെ വ്യക്തമായ ഉത്തരം എന്നുള്ളത് അതിന്നത്തെ പെസ്റ്റിസൈഡ്സും അതുപോലെ തന്നെ ഈ മാരകമായ രാസ വസ്തുക്കളുമാണ് ഈ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചാൽ പെട്ടെന്നു കാർഷികവിളകൾ കർഷകർക്കു കൊയ്യാനാകും അതുകൊണ്ടൊക്കെത്തന്നെ കർഷകർ എത്രയും പെട്ടെന്നു വിളകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്താൽ ഈ പെസ്റ്റിസൈഡ്സും മാരകമായ രാസ വസ്തുക്കളും രാസ വളങ്ങളും രാസവളങ്ങളുമെല്ലാമാണ് അവരുടെ കൃഷികളിലേക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊക്കെത്തന്നെ ഇത് ഇതുകൊണ്ടൊക്കെത്തന്നെയാണ് ഇന്നത്തെ കാർഷികോൽപ്പന്നങ്ങളിൽ വിശ്വസച്ചു കഴിക്കാൻ പറ്റുന്ന ഒരു കാർഷികവിള പോലും ലഭ്യമാകാത്തതിൻ്റെ കാരണം അതുകൊണ്ടൊക്കെത്തന്നെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്